നമ്മള് മുൻപെന്ന് പറയുമ്പോൾ ഈ അക്ഷയെലോക്കെ പോയിട്ടാണ് കൂടുതലായിട്ടും ഓരോ രജിസ്ട്രഷേൻ അല്ലെങ്കില് മറ്റെ എക്സാമിന് അപ്ലൈയ്യാനും അല്ലെങ്കിൽ എന്ത്കാര്യത്തിനാണെങ്കിലും നമ്മള് അക്ഷയെലും കാര്യങ്ങളും ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ കുറച്ചുംകൂടെ മെച്ചപ്പെട്ട കാരണം കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് മോബൈലില് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മക്കന്നെ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ കേമറ മുമ്പ് നമ്മള് കേമറ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കാനും ഓരോന്നിനൊക്കെ അല്ലെങ്കി സ്റ്റുഡിയോയില് പോയിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി നമുക്ക് നമ്മടെ ഫോണില് തന്നെ ഫോട്ടോ എടുത്ത് എല്ലാ കാര്യങ്ങൾക്കും എന്തിനും ഏത് ഇപ്പോൾ നമ്മളെ വലിയ എക്സാമിനതായത് ആർമിൻ്റെ പോലത്തെ അങ്ങനത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാണെങ്കിൽ കൂടെ നമുക്ക് നമ്മടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മള് നോക്കാണ് പറയുമ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് മുമ്പോക്കെ നമ്മള് ബാങ്കില് പോയി ചലാനടച്ച് അല്ലെങ്കിൽ ട്രെഷറീ പോയി ചലാനടച്ച് പിന്നെ അത് കൊണ്ടോയിട്ട് അപ്ലോഡെയത് അങ്ങനോക്കെ ഇപ്പോൾ നമുക്ക് അതിന്റെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മടെ നമ്മടെ ബാങ്ക് വഴി നെറ്റ് ബാങ്കിങ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയൊക്കെ ഏത് വഴി വേണെങ്കിലും നമുക്ക് മറ്റെ പൈസ അയക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് അതേപോലെ ഈ ഡെബിറ്റ് കാർഡ് വന്നപ്പോൾ പണ്ട് നമ്മള് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടീൽനിന്ന് പൈസ എടുക്കണം ഇപ്പോൾ അങ്ങനെ എ ടി എം കാർഡ് വന്നോണ്ടെന്താണുപകാരം ഏതെങ്കിലും എ ടി എം കടെ ഇതില് പോകുവ പൈസ എടുക്കുക എല്ലാം വളരെ പെട്ടെന്നായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറെയധികം മാറ്റങ്ങള് പ്പോ സാങ്കേതിക വിദ്യ കൊണ്ട് കുറെയധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതില് ഇപ്പൊൾ കുറച്ചോരണ്ണം മാത്രമാണ് ഞാൻ പറഞ്ഞത്